നമസ്കാരം ഞാൻ അശോക് അപ്പോൾ ബൈക്കില് താണ്ടിയേറ്റവും വെല്ലുവിളി നിറഞ്ഞ പാത അപ്പം എന്റെ അമ്മയുടെ വീട് എറണാകുളത്ത് വീടില് വീടിനടുത്തുള്ള ഒരു വ റോഡ് ഉണ്ട് അത് വളരെ കുഴിയും കുഴി നിറഞ്ഞതും വള വളവുകൾ ഉള്ളതുമായ ഒരു റോഡാണ് ആ ഒരു റോഡാണ് എനിക്ക് ബൈക്കില് താണ്ടിയേറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു റോഡായി തോന്നിയിട്ടുള്ളത് ആ റോട്ടില് ഞാന് ബൈക്ക് ഓടിച്ച് പഠിക്കുന്ന സമയത്ത് ഒ ഒരുതവണ വീണിട്ടുമുണ്ട് അതുകൊണ്ട് എനിക്കത് വെല്ലുവിളി നിറഞ്ഞ ഒരു റോഡായി തോന്നാൻ തന്നെ കാരണം പിന്നീട് ഞാൻ പലപ്പോഴും തിരക്ക് പിടിച്ച് പോകുമ്പോഴും വീ വീഴാനും പോയിട്ടുണ്ട് ആ റോഡ് ഒരു കുഴികൾക്ക് പുറമെ നര് നിറയെ വളവുകളും വളവുകളുള്ളതും കൂടിയാണ് ഇതിന് ഇത് വെല്ലുവിളിയാവാന് മറ്റൊരു കാരണം ഞാന് കഴിവതും ഈ റോഡൊഴിവാക്കുകയാണ് ചെയ്യാറ് ഇ ഇ ഇതിന് പകരം ഞാന് കുറച്ച് ദൂരം കൂടിയ വഴി ആണേലും ചുറ്റി പോവുകയാണ് ചെയ്യാറ് പിന്നെ ഇരുട്ടത്ത് വരുമ്പോള് ആ റൂട്ടില് ലൈറ്റും വളരെ കുറവാണ് അപ്പോള് രാത്രി വരലും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കാ റോട്ടില് തോന്നിയിട്ടുണ്ട് ഇപ്പോള് ആ റോഡ് ശരിയാക്കല് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞാലും വളവുകളുടെ സാന്നിധ്യം മൂലം ആ റോഡ് വെല്ലുവിളി തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് രാ ലൈ വെളിച്ചം രാത്രി വെളിച്ചത്തിന് വേണ്ടി സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്നതും ഗ പഞ്ചായത്താലോചിക്കുണ്ടെന്നാണ് അറിയാന് കഴിഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞാല് വെല്ലുവിളി കുറച്ച് കുറയുമെന്ന് തോന്നുന്നു എന്നാലും അത് അല്പം വെല്ലുവിളി നിറഞ്ഞ റോഡായിത്തന്നെ എനിക്ക് തോന്നാറുണ്ട്